ട്രാവൽ ഏജൻസി അല്ലേ ഞാൻ രാവിലെ പിന്നെ ഇവിടെ വരാൻ വേണ്ടിട്ട് ഒരു ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലേ ബുക്ക് ചെയ്തു വെച്ചതാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ വിനോദ സഞ്ചാരത്തിനായിട്ട് വന്നതായിരുന്നു ഞാനും കുടുംബം എല്ലാരുമുണ്ട് അപ്പം അയാളോടൊരു ഏഴു മണിയാവുമ്പോൾ വീട്ടിലെ വീട്ടിൻ്റെ അവിടെ വരാൻ പറഞ്ഞതാണേ ഇതുവരെ ആയിട്ടും എത്തീട്ടില്ല

ആ എന്തോ സുനിൽ അങ്ങനെ എന്തോ ആണ് പേര് കുറെ വട്ടം വിളിച്ചു വിളിച്ചിട്ട് എടുക്കുന്നില്ല അതെ അതെ ആ അപ്പോൾ ഒന്നുമില്ലെങ്കിൽ വരുന്നില്ലെങ്കിൽ വരുന്നില്ലാന്ന് പറയാനുള്ള ഒരു മര്യാദ എങ്കിലും കാണിക്കണ്ടേ ഒന്നൂല്ലേ ഫോണെങ്കിലും വിളിച്ചാൽ എടുക്കണം കാര്യം പറയണം എന്തെങ്കിലും പ്രശ്നത്തിലാണെങ്കിൽ കാര്യം പറയണം അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു ഏതെങ്കിലും വണ്ടി ഏൽപ്പിക്കായിരുന്നല്ലോ ഞങ്ങൾക്കിപ്പോൾ ഓട്ടോലാണെങ്കിലും പോകാമായിരുന്നു ഞങ്ങൾ മൂന്നുപേരെ ഉണ്ടായിരുന്നുള്ളു ഇതിപ്പോൾ ഒന്നുല്ലാത്ത അവസ്ഥ ആയിപ്പോയില്ലേ ഇനിയിപ്പം നിങ്ങളങ്ങനെ സോറി പറഞ്ഞിട്ടെന്താ കാര്യം ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന സമയത്ത് ഞങ്ങൾക്ക് പോകണ്ടേ ഞങ്ങളൊരമ്പലത്തിൽ തീർത്ഥാടനത്തിനായിട്ട് പോകയായിരുന്നു അത് ആ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല അമ്പലം അടച്ചു കഴിഞ്ഞില്ലേ ഇനി ഞങ്ങൾക്ക് പോയിട്ട് കാര്യമില്ല എന്ത് സോറി പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും ഇത് പറയാൻ വേണ്ടി വിളിച്ചതാണ് ഞങ്ങൾ വേറെ ഇനിയിപ്പോൾ നാളയേ പോകുന്നുള്ളൂ നാളെ ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചോളാം